ഓണത്തിന് പത്ത് ദിവസത്തെ അവധിയാണ് ഉണ്ടാകുന്നത് പിന്നെ ഓണത്തിൻ്റെ മുന്നേ പത്ത് ദിവസം മുന്നേ അത്തത്തിന് അത്തത്തിന് തുടങ്ങും അത്തത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് തലേദിവസം പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വച്ച് മുറ്റത് നടുമുറ്റത് ചിലവർ തറ പോലെ ഉണ്ടാക്കി അതിൻ്റെ മേലെ ചാണകം മെഴുകി പൂക്കളൊക്കെ ഇട്ട് പൂക്കളും തലേദിവസത്തെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടുവന്ന് നല്ല ഭംഗിയിൽ പൂക്കളം ഒക്കെ ഇട്ടിട്ട് തുടങ്ങും ഫസ്റ്റ് അത്തം തൊട്ട് പിന്നെ ചിത്തിര ചോതി അങ്ങനെ അങ്ങനെ തുടങ്ങി പത്തു ദിവസം പത്താമത്തെ ദിവസം തിരുവോണം തിരുവോണത്തിൻ്റെ അന്ന് വലിയ പൂക്കളൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ആഘോഷിക്കും അങ്ങനെയാണ് ഓണം ആഘോഷിക്കാറ് പിന്നെ ക്രിസ്മസിന് പത്തു ദിവസം അവധിയും പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ക്രിസ്മസിനും കുറച്ച് ദിവസം മുന്നേ പുൽക്കൂടൊക്കെ ഒരുക്കി നല്ല ലൈറ്റും ഉണ്ണിയേശുവിനെയും ആട്ടിടയന്മാരെയും മാലാഖമാരെയൊക്കെ വാങ്ങി പുൽക്കൂടൊക്കെ ഒരുക്കി ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല ക്രിസ്മസിൻ്റെ അന്ന് കേക്കും കേക്കൊക്കെ ഉണ്ടാക്കി പിന്നെ വീഞ്ഞുണ്ടാക്കും അങ്ങനെ ക്രിസ്മസ് ബിരിയാണി ഉണ്ടാക്കും ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കും പിന്നെ വിഷു വിഷുവിൻ്റെ അന്നും ഒരു ദിവസത്തെ ആ അവധി സ്കൂളിന് രണ്ടുമാസം പൂട്ടുമ്പോഴാണ് വിഷു വരാറ് രണ്ടുമാസത്തെ അവധിയിലാണ് വിഷു ഒന്നാം തീയ്യതി വിഷു ആഘോഷിക്കും വിഷു പടക്കമൊക്കെ പൊട്ടിച്ച് സദ്യയൊക്കെ ഒരുക്കി നല്ല വസ്ത്രങ്ങളും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ വിഷു ആഘോഷിക്കും പെരുന്നാള് രണ്ട് ദിവസത്തെ അവധി പെരുന്നാളിന് വീട്ടിൽ മുസ്ലീങ്ങളെ എന്താണ് ഇപ്പോൾ അത് ഞങ്ങളും ആഘോഷിക്കും ബിരിയാണി വെക്കണം നെയ്ച്ചോറ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ആഘോഷിക്കും ഗാന്ധി ജയന്തി ഗാന്ധിജി ജനിച്ച ദിവസം അതും അവധി ദിവസമാണ് സ്വാതന്ത്ര്യദിനം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അങ്ങനെ ആഘോഷിക്കും അംബേദ്കർ ജയന്തി പിന്നെ ദീപാവലി തമിഴ്നാട്ടിലെ ഒരു ആഘോഷമാണ് ഹോളി നിറങ്ങളുടെ ആഘോഷമാണ് അത് ഉത്തരേന്ത്യയിലാണ് കൂടുതലും ആഘോഷിക്കാറ് പിന്നെ ശ്രീകൃഷ്ണജയന്തി ആഘോഷിക്കും ചെറിയ കുട്ടികളെയൊക്കെ കൃഷ്ണൻ്റെ രാധേൻ്റേയും വേഷം കുചേലൻ്റെയൊക്കെ വേഷം കെട്ടി ഒരുക്കി കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഘോഷയാത്ര കൂടി ശ്രീകൃഷ്ണജയന്തി ആഘോഷിക്കും പിന്നെ പൊങ്കൽ തമിഴ്നാട്ടിലെ ഒരു ആഘോഷമാണ് അത് ആഘോഷിക്കാറില്ല നവരാത്രി ഉത്തരേന്ത്യയിൽ ആഘോഷിക്കും തൃശ്ശൂർ പിന്നെ തൃശ്ശൂർപൂരം നല്ലൊരു പേരുകേട്ട ആഘോഷമാണ് തൃശ്ശൂർപൂരത്തിന് നിരവധി ആനകളൊക്കെ ഉണ്ടാവും കുറെ ആനകൾ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ വെടിക്കെട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും തൃശ്ശൂർപ്പൂരവും ആഘോഷിക്കും പിന്നെ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നു അമ്പലത്തിൽ സ്ത്രീകളൊക്കെ പോയി അടുപ്പ് കൂട്ടിയിട്ട് പിന്നെ പായസമൊക്കെ നേധിക്കണ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല പിന്നെ മകരവിളക്ക് മകരവിളക്കിന് നാല്പത് ദിവസം മാലയിട്ട് നല്ല രാവിലെ എണീച്ച് നല്ല ശുദ്ധിയോടുകൂടി അമ്പലങ്ങളിലും ഒക്കെ പോയി നല്ല നല്ല ആഘോഷിക്കണൊരു മകരവിളക്ക് ആഘോഷിക്കാറുണ്ട് ശിവരാത്രി ശിവനും രാത്രി അന്ന് അന്ന് രാത്രി ശിവൻ ഉറങ്ങും അപ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങാതിരുന്ന് ആഘോഷിക്കുന്നൊരു ആഘോഷമാണ് ശിവൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ പൂജകളൊക്കെ നടത്തുന്ന പിന്നെ ഉത്രാളിക്കാവ് നല്ലൊരു ആഘോഷമാണ് ഉത്സവം ആണ് ഒരു പേരുകേട്ട ഉത്സവമാണ് ഉത്രാളിക്കാവ് അങ്ങനെ കുറെ ഉത്സവങ്ങളും അവധി ദിവസങ്ങളും ഉണ്ട്